വ്യാകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് അച്ചടിക്കുന്ന ഭാഷയാണ് അതായത് നമ്മള് ഇപ്പോള് എല്ലാവര്ക്കും തുല്യമായ അച്ചടി ഭാഷയാണ് നമ്മള് നല്കുന്നത് ഏതൊരു പുസ്തകത്തിലും ഒരേ അച്ചടി ഭാഷയാണ് വരുന്നത് എന്നാല് ഉച്ചാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോൾ ഓരോ ജില്ലയും ഡിപ്പെൻ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഉച്ചാരണം നല്കുന്നത് ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നോര്മല് സ്ലാങ്ങും തൃശ്ശൂരില് നേരെ വരുമ്പോൾ വേറൊരു സ്ലാങ്ങും അങ്ങനെ ഓരോന്നിനും ഉച്ചാരണം മാറി മാറി വരുന്നുണ്ട് എന്ന് എന്നാല് വ്യാകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരേ വ്യാകരണമാണ് വരിക ഒരേ അച്ചടി ഭാഷയാണ് വരുക പക്ഷെ ഉച്ചാരണത്തിലാണ് മാറ്റം വരുന്നത് അതിപ്പം ഓരോ ജില്ലയും ഡിപ്പെൻ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സ്ലാങ്ങ്സ് വരുന്നത് അതിപ്പോള് ഓരോ ജില്ലയിലും ഓരോ സ്ലാങ്ങ്സ് ആയിരിക്കാം വരുന്നത് അപ്പം അങ്ങെനെ വ്യാകരണത്തിലും ഉച്ചാരണത്തിലും ഒരുപാട് സവിശേഷതകള് ഭാഷയില് നിന്നു ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പം തൃശ്ശൂരിലെ ഭാഷയും വയനാട്ടിലെ ഭാഷയും തമ്മില് സ്ലാങ്ങ്സിൽ നോക്കുമ്പോള് ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്നാല് അത് രണ്ട് ഇതിലും വ്യാകരണം അച്ചടി ഭാഷയും ഒരേ ഇതായിരിക്കും അതിൻ്റെ സ്ലാങ്ങ് മാത്രമായിരിക്കും നമുക്ക് വ്യത്യാസ്തമായിട്ട് വരുന്നത്